മുടിയുടെയും ചർമ്മത്തിൻ്റെയൊക്കെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ഗ്രാമത്തിൽ പല കാര്യങ്ങളും നാട്ടുവൈദ്യങ്ങൾ ഉപയോഗിക്കാറുണ്ട് പലരും നാട്ടുവൈദ്യങ്ങൾ ഉപയോഗിക്കാറുണ്ട് പഷേ അത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ മുടിയുടെ മുടിയുടെ വേണ്ടിയിട്ടാണെങ്കിൽ പലരും ഉപയോഗിക്കുന്നത് ഈ വെള്ളത്താളിയില പിന്നെ അതുപോലെ തന്നെ ചെമ്പരത്തിയുടെ ഇല ചെമ്പരത്തിപ്പൂവ് ഇതൊക്കെ അരച്ച് ഒരു കല്ലിലിട്ട് അരച്ച് താളി രൂപത്തിലാക്കിയിട്ട് തലയിൽ തേക്കുന്നൊരു പ്രവണതയുണ്ട് അപ്പം നമ്മൾ തലയിൽ തലക്ക് ഏറ്റവും നല്ല ഒരു ഒരു വൈദ്യമാണ് ശരിക്കിനും ഈ താളിയിലകൾ ഉപയോഗിക്കുന്നതും അതുപോലെത്തന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞപോലെ ഈ എന്ത് ചെമ്പരത്തിയുടെ താളിയും വെള്ളിയിലത്താളിയൊക്കെ ഏറ്റവും നല്ലൊരു ഇതാണ് പിന്നെ അതുപോലെത്തന്നെ ഞങ്ങളുടെ ഉമ്മമാർ ചെയ്യുന്ന ചില അതായത് പഴയ ഉമ്മമാരൊക്കെ ചെയ്തിരുന്നത് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ സ്ഥിരമായിട്ട് ഞങ്ങളെല്ലാവരും ആട്ടിയ വെളിച്ചെണ്ണ ഉപയോഗിക്കാറുണ്ട് അത് തലയ്ക്കേറ്റവും നല്ലൊരു തലക്ക് നല്ല കുളിർമയും അതുപോലെത്തന്നെ മുടി വളരാനൊക്കെ ഏറ്റവും നല്ലൊരിതാണ് പിന്നെ നമ്മൾ ഈ വാങ്ങിയ വെളിച്ചെണ്ണയേക്കാളും ഏറ്റവും നല്ലത് നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കുന്ന വെളിച്ചെണ്ണയ്ക്കാണ് അതിന് ഇനിയിപ്പോൾ നമ്മൾ കറിയിൽ ഉപയോഗിക്കുകയാണെങ്കിലും ഏറ്റവും നല്ലത് നമ്മുടെ ശരീരത്തിനും പിന്നെ അതുപോലെ നമ്മുടെ എന്താ മുടിക്കും ഏറ്റവും നല്ലത് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന വെളിച്ചെണ്ണയാണ് അപ്പം അത് മാത്രമല്ല ഇപ്പോൾ നമ്മുടെ ചർമ്മത്തിന് ഉപയോഗിക്കാനും ഏറ്റവും നല്ലത് വെളിച്ചെണ്ണയായിട്ട് ഉപയോഗിക്കും പിന്നെ അതുപോലെത്തന്നെ ചർമ്മത്തിന് മഞ്ഞൾ പച്ച മഞ്ഞൾ വെച്ചിട്ട് നമ്മൾ ഉപയോഗിക്കും പച്ചമഞ്ഞളും മുഖത്ത് തേച്ചിട്ടും ശരീരത്തിന് പല ഭാഗത്ത് തേച്ചിട്ടൊക്കെ നമ്മളങ്ങനെ ഉപയോഗിക്കും പക്ഷെ നമ്മുടെ ഈ പഴയ വൈദ്യത്തിന് പഴയ അമ്മമാരും ചെയ്യുന്ന ഒരു കൂട്ടുണ്ട് എണ്ണക്കൂട്ടുണ്ട് വെളിച്ചെണ്ണയിൽ പച്ചമഞ്ഞൾ കറിവേപ്പില ആര്യവേപ്പില പിന്നെ അതുപോലെത്തന്നെ ചെമ്പരത്തിയില ഇങ്ങനെത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് എണ്ണ കാച്ചിയിട്ട് ആ എണ്ണ തലയിൽ തേക്കും കാരണം തലക്ക് നല്ല കുളിർമയും പിന്നെ മുടിക്ക് നല്ല കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് തേക്കും അത് നമ്മുടെ ചർമ്മത്തിനും നല്ലതാണ്